ഇതു വരെ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു മെമ്മറബിളായിട്ടുള്ള ഹൈക്കെന്നു പറഞ്ഞാല് ഹരിഹർ ഫോർട്ട് മുംബൈയില്അഥവാ മഹാരാഷ്ട്രയിലെ മുംബൈയില് ഹരിഹർ ഫോർട്ടിലുള്ള ഒരു ഹൈക്കുണ്ടായിരുന്നു അതു വളരെ ഒരു ഒരു മറക്കാത്തൊരു സംഭവമായിരുന്നു സംഭവം ഇത് ഞങ്ങള് ഞങ്ങളുടെ മുമബൈയിലേക്കുള്ള ഒരു ടൂർ പാക്കേജ് ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ചത്തെ ഇതു ഞങ്ങള് ആദ്യം മസ്റ്റായിട്ട് ചെയ്യണമെന്നു കരുതി വച്ചതായിരുന്നു ഹരിഹർ ഫോര്ട്ട് നമ്മള് ഒരുപാടു പോകുന്നതിനുമുന്നെ തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിക്കണ്ടിരുന്നു അപ്പോള് ഇന്ത്യയിൽ തന്നെ നമ്മള് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഹൈക്കായിട്ടായിരുന്നു എല്ലാവരും വ്ളോഗർമാരൊക്കെ പ്രത്യേകിച്ചിതിനെ മെൻഷൻ ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങള് എല്ലാവരും ഒരു പേടി സ്വപ്നമായിരുന്നു അതിന്റെയാ മു മുകളിലേക്കുള്ള ഛത്ര പതി ശിവജിയുടെ ഒരു ഫ്ലാഗ് ഉണ്ട് അവിടെ ഏറ്റവും അതിന്റെ പീക്കില് ആ പീക്കിലെത്തണം അപ്പോള് അതിനെത്തുന്നതിന്റെ മുന്നേ ഇതൊരു വലിയൊരു കുന്നുമേഖലയാണ് വലിയൊരു മലയോര മേഖലയാണ് അതു നമ്മള് ആ ഏരിയയില് എത്തുമ്പോള് ഓട്ടോ റിക്ഷ മുഖേനയാണു നമ്മള് അങ്ങോട്ടു പോകുന്നത് അപ്പോള് പോയി കുറച്ചുകഴിയുമ്പോള് ഓട്ടോ റിക്ഷ കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് കിലോ മീറ്ററിനടുത്ത് അതിൻ്റെ മേ ഏറ്റവും പീക്ക് പോയിന്റ് എത്തുന്നതുവരെ നടക്കാനുണ്ട് അപ്പോള് ഈ നടത്തമെന്നൊക്കെ പറഞ്ഞാല് നമ്മള് കാടിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് അപ്പോള് നമ്മള് ഫ്രണ്ട്സ് കൂടി ഉണ്ടാവുമ്പോള് അത് ഒന്നുകൂടിയും അതിന് ബ്യൂട്ടിയും അതുപോലെതന്നെ ഒന്നുകൂടി ഹാൻസമാവും ഈ ഈ ഒരു വൈബ് അപ്പോള് നമ്മള് പ്രത്യേകിച്ച് നമ്മള് ഈ ഒരു ട്രക്കിങ്ങിലും ഈ ഹൈക്കിലൊക്കെ താല്പര്യമുള്ള ആളാവുമ്പോള് ഒന്നുകൂടി അതിനൊരു ചന്തം കൂടും അപ്പോള് ഞങ്ങളങ്ങനെ നടന്ന് അതില് എനിക്ക് അതില് ഇത്ര താല്പര്യവും ഇഷ്ടവും ഉണ്ടാകാൻ കാരണം ഞാന് അതൊരു ആദ്യം പോകുമ്പോള് അത്രയും ദൂരമുണ്ടാവുമ്പോള് ഒരു ചലഞ്ചായിട്ട് വെള്ളം കുടിക്കാതായിരുന്നു ഞാന് കയറുന്നുണ്ടായിരുന്നത് അതിങ്ങനെ കയറിക്കയറി ഞങ്ങള് അവിടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളില് കുറച്ച് ടീം ഫസ്റ്റ് അതിൻ്റെ പീക്കിലെത്തി പിന്നെ പിന്നെയാണ് ഞാൻ പീക്കിലേക്ക് എത്തുന്നത് എൻ്റെ കയ്യില് വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട് പക്ഷേ ഞാൻ കുടിക്കാതൊരു ചലഞ്ച് വച്ചുകൊണ്ടായിരുന്നു ഞാൻ കയറിയത് അപ്പോള് ലാസ്റ്റ് അവിടെനിന്നൊരു കൈ കൊടുത്തുകൊണ്ടു ഞാൻ കയറുമ്പോള് അതിന്റെ മേലെയെത്തിയിട്ടു കുടിക്കണമെന്നു കരുതിയതായിരുന്നു അപ്പോള് വെള്ളം വേറെയൊരാളുടെ കയ്യില് കൊടുത്തു അവരങ്ങനെ പാസെയ്ത് ഫ്രണ്ട്സ് കുടിച്ച് ഞാനവിടെ മുകളിലെത്തിയപ്പോഴത്തേനും വെള്ളം യാതൊരു അവസ്ഥയുണ്ടായിരുന്നു അതു വല്ലാത്തൊരു അല്ലാതൊരു പിന്നെ അത് കിട്ടണമെന്നുണ്ടെങ്കില് ഇതു മൊത്തം ഇറങ്ങിയതിനുശേഷമേ കിട്ടുകയുള്ളൂ വല്ലാത്തൊരു ഒരു സ്ട്രഗിളിങ് ഫേസ് അവിടെ ഞാന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ത്യയില്ത്തന്നെ ജനപ്രിയ ട്രക്കുകള് ഏതൊക്കെയാണെന്നു ചോദിച്ചാൽ ഒന്ന് ഹരിഹര ഫോർട്ടെന്നെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിലാണെന്നുണ്ടെങ്കില് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ തന്നെ പലതായിട്ടുണ്ട് അതൊക്കെ ഞമ്മള് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഞമ്മള് ജനറലായിട്ട് അറിയുന്നതിലേറെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്